ഇപ്പോൾ നമ്മുടെ ഗെയിം ബോക്സിൽ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ പബ്ജി ഉണ്ട് പിന്നെ ക്ലാഷ് ഓഫ് ക്ലാൻസ് പിന്നെ കാർ റേസിംഗ് അങ്ങനെ പലരീതിയിലുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ നമ്മള് മൊബൈലിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും ഉണ്ട് ഇപ്പോൾ ജി ടി എ എ ജി ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമും കാര്യങ്ങളൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് നല്ല വെർച്വൽ എഫക്റ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് നമ്മളിപ്പോൾ അതിനകത്തേക്ക് നമ്മളായിട്ട് ഗെയിം കളിക്കുന്ന പോലത്തന്നെയൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഗെയിമും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് കളിക്കാൻ വേണ്ടീട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഗെയിമ് കളിക്കണമെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ളൊരു ഒരു കാര്യങ്ങളൊക്കെ വേണ്ടിവരും പിന്നേയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള മൊബൈൽ ഫോൺസ് ഇപ്പോൾ ഇപ്പോൾ പല രീതിയിലുള്ള മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ല രീതിയിലുള്ള ഒരു വിഷ്വൽ എഫെക്ട് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ വേണം പിന്നെ ചിലപ്പോൾ ലാഗും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഫോണൊക്കെ ഉണ്ടെണ്ടങ്കിലേ നമുക്ക് കളിക്കാനൊക്കെ പറ്റുകയുളളൂ